എറണാകുളം ജില്ലയിൽ ഓരോ ചെറിയ ലോക്കൽ പ്രദേശം അങ്കൺവാടി മുതല് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടുന്ന നിലവാരമുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും വരെ ഉണ്ട് ഇപ്പം ഓരോ പ്രദേശത്തും അംഗൻവാടികളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങള് മൂന്ന് വയസു വെരെ ആറ് വയസ്സ് വെ ഇത വരെ ഒള്ള കുട്ടികൾക്ക് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ആയമാർ എല്ലാ സഹായങ്ങളും അവർക്ക് പഠന വിനോദ വിജ്ഞാന ങ്ങള് ഉപകരിക്കുന്നൊരു രൂപത്തിലാണ് സർക്കാര് സംവിധാനം ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പ്രാദേശികമായി തന്നെ ഒട്ടും ദൂരെയല്ലാത്തെ സർക്കാരിൻ്റെ സ്കൂള്ണ്ട് അതും സർക്കാരിൻ്റെ സ്കൂൾ പണ്ടത്തെ പോലുള്ള സ്കൂളുകളല്ല ഹൈടെക്ക് സ്കൂളുകളാണ് ഇപ്പോൾ ഇന്ന് ഇന്നുള്ളത് അതിന് സർക്കാരിൻ്റെ മേൽ നോട്ടം കൂടാതെ പ്രാദേശികമായിട്ട് അവിടത്തെ പ്രാ പ്രാദേശികമായ അറിയപ്പെടുന്ന നല്ല മനുഷ്യരുടെയൊരു കൂട്ടായ്മയും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോല തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളും ഡോൺ ബോസ്കോ പോലെയുള്ള സ്കൂളുകളും സെന്റ് പാട്രിക്ക് പോലെ സ്കൂളുകളും ഓന്ന് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ നിലവാരത്തിൽ എറണാകുളം ജില്ല വളരെ പ്രശസ്തമാണ് അതുപോല തന്നെ അക്കാദമിക് അല്ലാത്ത വരുന്ന ടെക്കിനിക്കൽ സ്കൂളുകളും ഒക്കെ എറണാകുളം ജില്ലയിൽ ധാരാളം ഉണ്ട് അപ്പോൾ ടെക്നിക് ടെക്നോളജി സമ് യില് ഐ ടി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങ് ഇൻസ്റിറ്റ്യൂട്ടുകള് അതുപോലെ തന്നെ ഓരോ പ്രവർത്തി പരിചയം കിട്ടാനുള്ള സ്കൂളുകള് ഐ ടി ഐ കള് ഐ ടി സി കള് അതുപോലെ തന്നെ കംപ്യൂട്ടർ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഒത്തിരി ക്രാഷ് കോഴ്സുകള് ഉള്ളത് ഇന്ന് എറണാകുളം ജില്ലയിൽ ധാരാളമുണ്ട് അതും അങ്കമാലിയായ പ്രദേശത്ത് ഇതുപോലെ സമ്പന്നമാണ് ഒത്തിരി ഒത്തിരി കോഴ്സുകൾ പഠിപ്പിക്കുന്നു ഗവണ്മെന്റ് ഉള്ള കൊ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് പ്രൈവറ്റ് മാനേജെന്റുകൾ ഉണ്ട് ലോകത്തിലുള്ള സകല സാങ്കേതിക വിദ്യകളും പഠിപ്പിക്കാനൊ പഠിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ചുരുങ്ങിയ ചെലവിൽ വിദേശത്ത് പോകുന്നതൊക്കെ എളുപ്പം എറണാകുളം ജില്ലയിൽ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്